ആ നമസ്കാരം ഇതാരാണ് ആ ശൈലേഷ് ആ ഓക്കെ

ആ ആ ടൂർ എങ്ങനത്തെ പ്ലാനാണ് നിങ്ങൽ ഉദ്ദേശിക്കുന്നത് എവിടെ പോകാനാണ് എവിടെ എവിടെത്തേക്ക് എങ്ങനത്തെ ഉള്ള എങ്ങനത്തെ ഉള്ള സ്ഥലം വിസിറ്റ് ചെയ്യാനാണ് നിങ്ങളെ ഒരു പ്ലാൻ എങ്ങനെയാണെന്ന് പറഞ്ഞു തരുമോ മൂന്നു മൂന്നു ദിവസത്തെ ട്രിപ്പ് പാക്കേജ് ഓക്കെ കേരളം മതി കേരളത്തിൽ കേരളത്തിലാണെങ്കിൽ അപ്പോൾ കേരളത്തിലാണെങ്കിൽ നമുക്ക് ടൂർ പാക്കേജ് എന്നു വച്ചാൽ വയനാട് ഊട്ടി കൊടൈക്കനാൽ കൊച്ചി നാല് മെയിൻ പ്ളേസാണുള്ളത് പിന്നെ അതുപോലെ വേണമെങ്കിൽ മൂന്നാറിലേക്ക് പോകാം മൂന്നാറിൽ നിന്നു ഇങ്ങോട്ടേക്ക് അവിടെ നിന്നു ഇങ്ങോട്ടേക്ക് വരുന്നുള്ളൊരു ഡെസ്റ്റിനേഷനുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഉദ്ദേശിക്കുന്ന പാക്കേജ് എത്രയാണ് പ്ലാൻ പ്ലാൻ പാക്കേജ് എത്രയാണ് വച്ചാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു ബഡ്ജറ്റ് എമൗണ്ട് എത്രയാണ് വരുന്നത് ഫോർ തൗസൻഡ് പെർ ഹെഡാ അപ്പോൾ നല്ല ഒരു പ്ലാൻ എന്താണെന്നു വച്ചാൽ ഞാൻ പറയാം ഇപ്പോൾ ഇപ്പോൾ ഊട്ടി കൊടൈക്കനാലിലേക്ക് പോകുകയാണെങ്കിൽ ഇപ്പോൾ നല്ല ക്ലൈമറ്റ് ആണ് ഊട്ടിയിൽ ഇപ്പോൾ നല്ല കാര്യമായ പ്ളേസ് ഒക്കെ ഉണ്ട് കുറേ വാട്ടർഫോളും പിന്നെ പൈൻ ഫോറെസ്റ്റ് അങ്ങനെയുള്ള കുറച്ചു നല്ല ഒരു പ്ളേസുണ്ട് അപ്പോൾ ഊട്ടിയിൽ ഇപ്പോൾ ഇവിടെ നിന്നു രാത്രി പോകുന്നെങ്കിൽ അവിടേക്ക് രാവിലെ ഒരു അഞ്ചു മണിയാകുമ്പോൾ എത്തും അപ്പോൾ അഞ്ചു മണിക്ക് അഞ്ചു മണിക്ക് അവിടെ ഹോട്ടലിൽ ചെക്കിൻ ചെയ്തിട്ട് എത്തി ഫ്രഷായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് നമുക്ക് നേരെ ഇവിടേക്ക് പോകാം എവിടെ പൈൻ ഫോറെസ്റ്റിലേക്ക് പോകാം ഓക്കെ പൈൻ ഫോറെസ്റ്റ് നമ്മൾ അപ്പോൾ പൈൻ ഫോറെസ്റ്റ് നിന്ന് അവിടെ നിന്ന് ഒരു ഹാങ്ങ്ഓവറായിട്ട് ഒരു ടൂ അവർ അവിടെ സ്പെൻഡ് ചെയ്തിട്ട് ആയിട്ട് നേരെ റിസോർട്ടിലേക്ക് വന്നു അവിടെ നിന്ന് ഫുഡ് ലഞ്ച് പാക്കേജ് ആക്കിയിട്ട് പിന്നെ വീണ്ടും പോകുന്നത് ബൊട്ടാണിക്കൽ ഗാർഡനിലേക്ക് പോകണം ഓക്കെ കർണാടക അല്ല ബട്ട് സോറി ബൊട്ടാണിക്കൽ അല്ല സോറി ഒരു ഗാർഡനുണ്ട് അവിടെ നല്ല ഒരു കാണാനൊക്കെ വളരെ ഭംഗിയുള്ള ഒരു ഗാർഡനുണ്ട് അതിൻ്റെ പേര് ഞാൻ കുറച്ചു ഞാൻ നിങ്ങൾക്ക് വാട്സാപ്പിൽ പിഡിഎഫ് ആയിട്ടയക്കാം ഓക്കെ

ഒരു രാമക്കൽ മേട് പറഞ്ഞ ഒരു സ്ഥലമുണ്ട് അവിടേക്ക് പോയിട്ട് നല്ല ഒരു വ്യൂ പോയിൻ്റാണ് അവിടെപോയിട്ട് ആയിട്ട് അവിടെ വ്യൂ പോയിൻ്റും കഴിഞ്ഞിട്ട് ഒരു നേരെ ഒരു തിരിച്ച് ഈ റിസോർട്ടിലേക്ക് ചെക്കിൻ ചെയ്യും ഓക്കെ അപ്പോൾ വൺ ഡേ അവിടെ കമ്പ്ലീറ്റ് ആയി ഊട്ടിയിൽ പിന്നെ വരുന്നത് ഓക്കെ പിഡിഎഫ് അയക്കാം ഓക്കെ ഓക്കെ ഓക്കെ

ഓക്കെ ഓക്കെ വെൽക്കം വെൽക്കം